ആ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്ന് മതമാണല്ലോ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏപ്പോഴും കാണുന്നതും മൂന്ന് മതങ്ങളാണ് ക്രിസ്റ്റ്യൻ ഹിന്ദു മുസ്ലിംമ് ആ മൂന്ന് മതങ്ങളാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെരുന്നാൾ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത് എന്നു വച്ചാൽ നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ മധ്യസ്ഥൻ്റെ പേരിലുള്ള പെരുന്നാൾ പിന്നെ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് ക്രിസ്മസ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെയാണ് നമുക്ക് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ നൊയിമ്പൊക്കെ നോക്കാറുണ്ട് നമ്മുടെ നൊയിമ്പ് എന്നു വച്ചാൽ ക്രിസ്മസിന് നമ്മളൊരു ഇരുപത്തഞ്ച് നൊയിമ്പ് നോക്കാറുണ്ട് ഇരുപത്തഞ്ച് ദിവസം അതുപൊലെ തന്നെ നമ്മളൊരു അമ്പത് നൊയിമ്പ് നോക്കാറുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നൊയിമ്പെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഇറച്ചി മീൻ മുട്ട ഇത് മാറ്റി വെക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാറ്റി വെച്ചുള്ള നൊയിമ്പെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എനിക്ക് മറ്റ് മതത്തിൻ്റെ ഒരു ആകർഷണമായിട്ട് തോന്നിയെന്ന് വച്ചാൽ നമ്മൾ മുസ്ലിമ്സിൻ്റെ നോക്കി കഴിഞ്ഞാൽ അവരുടെ നൊയിമ്പെന്ന് പറഞ്ഞാൽ അവർ ഉമിനീർ പോലും ഇറക്കാതെ ഉള്ള നൊയിമ്പാണ് അവരുടെ അവർ അത് കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ വരെയൊക്കെ നൊയിമ്പ് നോക്കാറുണ്ട് നമ്മുടെ കുറച്ച് പേർ നോക്കും അത്ര കമ്പൽസറിയായിട്ട് നമ്മൾ അത് അതിനെ കാണുന്നില്ല അത്രയും നിർബന്ധമായിട്ട് നമ്മളത് നൊയിമ്പ് നോക്കണം എന്നൊക്കെ പറഞ്ഞാലും കഴിവതും പലരും അത് അങ്ങോട്ട് നോക്കാറില്ല ആ പിന്നെ ഒരു ഒരു ചടങ്ങുപോലെ ഒക്കെയാണ് നമ്മൾ നമ്മുടെ നൊയിമ്പ് നമ്മൾ നോക്കുന്നത് ഈ ഇറച്ചി ചിലപ്പോൾ മേടിക്കത്തില്ല ഇറച്ചി നൊയിമ്പ് അന്ന് ആ മീൻ കൂട്ടിയേക്കാം എന്നൊക്കെ ഉള്ളൊരിത് അപ്പം മുസ്ലീംസെന്ന് പറഞ്ഞാൽ അവർ കഠിനമായി നൊയിമ്പിൽക്കൂടിയാണ് കടന്നുപോകുന്നത് അപ്പോൾ അത് ഒരു നമുക്ക് പഠിക്കാൻ എന്ന ഒരു കാര്യം തന്നെയാണ് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആഘോഷങ്ങൾ ഒക്കെയാണെങ്കിലും നമ്മുടെ ആഘോഷങ്ങൾ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെയായിട്ട് നമ്മളങ്ങ് ഒതുങ്ങി പോകുന്നുണ്ട് മറ്റ് പലർക്കും ദീപാവലിയൊക്കെ പോലുള്ള അത് എന്നെ ആകർഷിച്ചിട്ടുണ്ട് അത് വളരെ ദീപങ്ങളൊക്കെ അലങ്കരിച്ച് ആ അതൊക്കെ ഒരു രസമാണ് ആ പിന്നെ നമുക്കുമുണ്ട് അതുപോലെ തന്നെ ദർഹാ തിരുനാൾ നമ്മൾ ക്രിസ്റ്റ്യൻസ് ആഘോഷിക്കാറുണ്ട് പിണ്ടികുത്തി പെരുന്നാളെന്നൊക്കെ പറയാറുണ്ട് പിണ്ടിയിൽ വിളക്കെല്ലാം തെളിയിച്ചു അന്നങ്ങനെ നമ്മൾ ആഘോഷിക്കാറുണ്ട് അപ്പം ഈ പിന്നെ ഹിന്ദുസിനെ സംബന്ധിച്ചെടുത്താണെങ്കിലും അവർ അവരുടെ അമ്പലങ്ങളിലൊക്കെ പോവുമ്പോഴേക്കും വളരെ ശുദ്ധിയായിട്ടൊക്കെ പോവുക നമുക്കങ്ങനെ ക്രിസ്ത്യാനിക്കൾക്ക് അങ്ങനെ ഒന്നുമില്ല അവർ എങ്ങനെ ആണെങ്കിലും ചെന്ന് പള്ളിയിൽ കയറുക എന്നൊക്കെ ഉള്ളൊരിതാണ് അപ്പോൾ അതിൽ അതും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ആ വന്ന് നോക്കുമ്പോഴേക്കും അമ്പലങ്ങലിലൊക്കെ പോകുമ്പോൾ അവർ വളരെ പുണ്യ ഒരു സ്ഥലമായിട്ട് കണ്ട് അമ്പലങ്ങളിൽ ചെന്നു കയറുകയും നമ്മൾ പള്ളിയിൽ എല്ലാവരും വന്ന് അങ്ങനെ ഒരു വലിയൊരു പുണ്യ സ്ഥലം പോലൊന്നും ആരും അങ്ങനെ കൂടുതലും കാണുന്നില്ല എന്നുള്ളതാണ് കയറുന്നു പോവുന്നു ഇറങ്ങിപ്പോവുന്നു ആ രീതി പക്ഷേ അമ്പലങ്ങളിലൊക്കെ എല്ലാവരേയും കൊള്ളിച്ച് വൃത്തിയായിട്ട് വന്നു കയറുന്നു അവർ ആ ഒരു പുണ്യ സ്ഥലംപോലെ തന്നെ കണ്ട് വണങ്ങി പോവുന്നു നമ്മുടെ ക്രിസ്റ്റ്യൻസിന് അത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്